ഇന്ത്യന് വിദ്യാഭ്യാസ സമ്പ്രദായം വളരെ നല്ലതാണ് എങ്കിലും നമ്മുടെ എല്ലാ സ്റ്റേറ്റിലും ഉള്ള വിദ്യാഭ്യാസവും അവര് അതാത് ലാങ്വേജിലാണ് ഗവണ്മെന്റ് സ്കൂളുകളിൽ ഒക്കെ അതാത് ലാങ്വേജിനാണ് കൂടുതല് പ്രിഫറന്സ്സ് കൊടുക്കുന്നത് അപ്പം ആ സ്റ്റേയ്റ്റ് ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ല പിന്നെ ജോലിയോടൊപ്പം പഠനത്തോടൊപ്പം ജോലിക്ക് അത്ര പ്രാധാന്യം നേരത്തെയൊക്കെ കുറവായിരുന്നു അതായത് ഇപ്പം പിന്നെ പ്രോജക്റ്റ് അങ്ങനെയൊക്കെ ഉള്ള സമ്പ്രദായങ്ങള് തുടങ്ങിയ കാരണം പഠിക്കുന്നതിനോടൊപ്പം ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇപ്പം

പാത്രം കഴുകുക അങ്ങനെ ഉള്ള ജോലികള്ക്കൊക്കെ നമ്മള് റെസ്റ്റോറന്റിലൊക്കെ പോകുന്നത് വളരെ കുറവായിട്ട് കുറച്ചിലായിട്ട് പരി പരിഗണിക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ ഉള്ള അവസരങ്ങൾ ഇല്ല

അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ഇംഗ്ലീഷ് നമ്മള് പ്രിപ്പയറ് ചെയ്യുന്നുണ്ട് എക്സാംസൊക്കെ പ്രിപ്പേയ്റ് ചെയ്ത് ഇംഗ്ലീഷ് പ്രിപ്പയറ് ചെയ്ത് ഇങ്ക് എക്സാംസൊക്കെ പാസ് ആകേണ്ടത് ഉള്ളത് കൊണ്ട് നല്ലതായിട്ട് ഇംഗ്ലീഷ് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയും പിന്നെ കുട്ടികള്ക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു രീതിയുമാണ് കൂടുതല് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്